സാർ എനിക്ക് ഒരു കിലോ പ്രോൺസും ഒരു കിലോ ക്രാബും വേണം ഇത് രണ്ടും സെപ്പറേറ്റായിട്ടാണ് പാക്ക് ചെയ്യേണ്ടത് ക്രാബ് എനിക്ക് വേണ്ട എനിക്ക് അയ്യോ സാർ എനിക്ക് ക്രാബും വേണം സാർ ക്ഷമിക്കണം എനിക്ക് ഒരു കിലോ ക്രാബ് ഒരു കിലോ അയല ഒരു കിലോ കൊഞ്ച് ഇത് മൂന്നും ആണ് വേണ്ടത് ഇത് മൂന്നും സെപ്പറേറ്റായിട്ട് വേണം എനിക്ക് ലഭിക്കാൻ എൻ്റെ എൻ്റെ പൊന്നു സാറേ എനിക്ക് ഇന്ന് തന്നെ വേണം ഇത് നിങ്ങളുടെ ഫിഷെല്ലാം ഫ്രഷാണോ

ഏഹ് എനിക്കൊരു പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ മതി ഒരു മണിക്ക് ലഞ്ച് കഴിക്കേണ്ട സമയം ആവത്തില്ലേ എനിക്ക് ഒരു മണിക്ക് ഇത് കിട്ടിയിട്ട് കാര്യം ഇല്ലല്ലോ അത് പിന്നെ ഒരുപാട് ലേറ്റ് ആവില്ലേ സാർ അതങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് സാർ എനിക്ക് ഞാനല്ലേ നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമറ് എനിക്കൊരു പതിനൊന്ന് മണിക്ക് തന്നുകൂടെ സാർ പതിനൊന്ന് മണിക്ക് എങ്ങനെയെങ്കിലും തരാൻ നോക്കു തരാൻ നോക്കു സാറേ എനിക്ക് അത് അത്യാവശ്യം ആയതുകൊണ്ടല്ലേ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് ഇന്ന് എൻ്റെ മകളെ പെണ്ണ് കാണുന്ന ചടങ്ങാണ് അതിന് അത്യാവശ്യം ആയിട്ട് വേണ്ടതാണ് ഒരു കിലോ കൊഞ്ച് ഒരു കിലോ ക്രാബ് ഒരു കിലോ സാൽമൺ മുന്നൂറുരൂപ ഇതിന് വില കുറയത്തില്ലേ എന്ത് ഒരു മാതിരി മനുഷ്യന്മാരെ അറുത്ത് ജീവിക്കുകയാണോ നിങ്ങൾ നിങ്ങൾക്ക് ടൈറ്റാണെന്ന് പറഞ്ഞ് സാർ കസ്റ്റമേഴ്സ് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇല്ലോജിക്കലായിട്ടാണല്ലോ സംസാരിക്കുന്നത് ലോജിക്കായിട്ട് സംസാരിക്ക് നിങ്ങൾ പൈസ ഇത്രയും കൂടി നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരണമെന്നാണോ നിങ്ങൾ പറയുന്നത് അതെ ഇത് എത്ര രൂപ വച്ചാണ് എത്ര രൂപ വച്ചാണ് കുറയ്ക്കുന്നത് ആ ആലോചിക്കാം ആ എന്തായാലും പതിനൊന്ന് മണിക്ക് കിട്ടില്ലേ ഇതൊക്കെ ആ ശരി ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ സാർ